പൊതു വിദ്യാഭ്യാസരംഗത്ത് ഉയർന്ന നേട്ടങ്ങള് കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും ഒരു ഒന്ന് രണ്ട് കിലോമീറ്റര് ചുറ്റളവില് സ്കൂളുകളുണ്ട് എന്നാലും ഏതാനും ട്രൈബൽ പ്രദേശങ്ങളും ഇതിന് ഇതിനൊരു അപവാദമാണ് അതായത് വിദ്യാഭ്യാസം സൗജന്യമാണ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കൊഴിഞ്ഞുപോക്ക് വളരെ അധികം കുറവാണ് എങ്കിലും നമ്മുടെ വിദ്യാഭ്യാസം ഗൗരവമേറിയ പ്രശ്നങ്ങള് നേരിടുന്ന ഒന്നാണ് കേരളത്തില് ജനസംഖ്യ വർദ്ധനനിരക്ക് അതിവേഗത്തിൽ കുറയുകയാണെങ്കിൽ അതൊരു വർദ്ധന നിരക്ക് തന്നെ ആയിരിക്കും ഇത് തൊണ്ണൂറുകളില് അതായത് തൊണ്ണൂറുകളില് അതിവേഗം താഴ്ന്നുകൊണ്ടിരിക്കുന്ന ഈ ജനനനിരക്ക് അതായത് പതിനെട്ട് ആയി കുറഞ്ഞിരിക്കുന്നുണ്ട് അങ്ങനെ പോവുകയാണെങ്കില് ഓരോ ജനനനിരക്ക് കുറയുന്നതിൻ്റെ ഫലമായി സ്കൂളുകളിള് പ്രവേശനത്തിൻ്റെ തോതും അതിവേഗത്തില് താഴ്ന്നുകൊണ്ട് ഇരിക്കുകയാണ് അങ്ങനെ വെക്കണ ഈ എഴുപതുകളില് ആദ്യം അങ്ങനെ വച്ചു നോക്കുകയാണെങ്കില് ഹൈസ്കൂളുകളില് ഏതാണ്ട് രണ്ടിരട്ടിയായി വർധിച്ചിട്ടുണ്ട് അതേസമയം മുമ്പുള്ള അംഗീകൃതമില്ലാത്ത പ്രൈമറി സ്കൂളുകള് വൻ തോതില് വർധിച്ചിരിക്കുന്നുണ്ട് പിന്നെ വിദ്യാലയങ്ങളിലെ നിരക്ഷരതയെ കുറിച്ചും വിവിധ ജില്ലകളില് നടത്തിയ പഠനങ്ങളുടെ ഫലങ്ങളും ഗുണം നിലവാര ഇല്ലായ്മയെ സൂചിപ്പിക്കുന്നു പിന്നെ പ്രൈമറി വിദ്യാർത്ഥികളിലും മൂന്ന് മൂന്നിലൊന്നോളം അക്ഷരം ഇത് അക്ഷരം ഇല്ലായ്മക്ക് ഇതിലായിട്ടും പോവുന്നുണ്ട് പിന്നെ ഏറ്റവും പിന്നെ തൊഴിലില്ലായ്മ ഏറ്റവും ഏറ്റവും അധികമുള്ള സംസ്ഥാനമാണ് നമ്മുടെ ഈ കേരളം പിന്നെ ഇല്ലാത്തവരേലും ആ പിന്നെ ഭൂരിഭാഗവും എസ് എല് സി മാത്രം വിദ്യഭ്യാസമുള്ളവരുടെ ഇടയിലാണ് അവരില് പകുതിയിലധികം പെൺകുട്ടികളാണ് ഇവരില് സാങ്കേതിക സാങ്കേതികമായിട്ടുള്ള എണ്ണം തകരുന്നതിന് വളരെയധികം ചുരുക്കമാണ് പിന്നീട് വിദഗ്ധ തൊഴിൽ പരിശീലനം നൽകും എന്നിട്ട് കുടുംബ സമൂഹ സാഹചര്യങ്ങള് പിന്നെ എന്തുവാണ് പൊതു വിദ്യഭ്യാസം കൊണ്ടോ ഒന്നും തന്നെ ലഭിക്കുന്നില്ല പിന്നെ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇവരില് ഭൂരിപക്ഷം പെൺകുട്ടികളാണേല് രക്ഷിതാക്കളുടെ ആഗ്രഹങ്ങള് പൊതുവിദ്യാഭ്യാസ രംഗത്ത് ശക്തമായ സ്വാധീനം ചെലുത്താന് അവര് നോക്കുന്നുണ്ട്